ഹലോ

ആ സുഖമായിരിക്കുന്നു ഷേർലി പിന്നെ വീടുപണി വീടുപണിയൊക്കെന്നായി ആ ഉം ഉം എന്തോ ആ അത് ആ അതേ പിന്നെ പിള്ളേര്ക്ക് പരീക്ഷയുടെയൊക്കെ ഒരു കാലഘട്ടമല്ലേ കൊച്ചേ വരുന്നത് അന്നേരം പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അന്നേരം അതിൻ്റെ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായോ പിള്ളേർക്ക് സ്റ്റഡി ലീവ് വരുമ്പഴ്ത്തേന് സ്റ്റഡി ലീവിൻ്റെ സമയമാണല്ലോ പരീക്ഷയാകുമ്പോഴ്ത്തേന് ഇച്ചിരി പണിയൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണെങ്കില് നമുക്ക് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു സൗകാര്യമാകുമല്ലോ എന്നൊക്കെ അറിയാനും പണിയെന്നായെന്നായെന്നൊക്കെ അറിയാനായിട്ടൊക്കെ വിളിച്ചതാണ് ഉം ആ ആ അതാ മെഷ്യൻ്റെയൊക്കെ ഒരു സൗണ്ട് കേള്ക്കുമ്പോഴേ അപ്പോള് ആ കേള്ക്കുമ്പോള് അപ്പോള് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോള് അതിൻ്റെ പണി തീരാൻ ആ തീരാറായെങ്കിലേ എന്നാന്നൊക്കെ അറിയാനായിട്ടൊക്കെ ഒന്നു വിളിച്ചതാണു കൊച്ചേ ആ ഉം

ആ ആ ആ ആ ഇല്ല എക്സാമിൻ്റെ ആ അപ്പോള് അങ്ങനെ മാറിപ്പോകുമെങ്കില് അത് ഒരു കുഴപ്പവുമില്ല അതു നല്ല കാര്യം ഇപ്പോള് എന്നാന്നു ചോദിച്ചാല് പിള്ളേർക്ക് പഠിക്കുകയും ചെയ്യാം പരീക്ഷ എഴുതുകയും ചെയ്യാം അവിടെ നി ഏഹ് ആ പൊടി പാറിച്ചെന്നു പറഞ്ഞാല് ഈ ഡ്രില്ലിങ്ങ് മെഷ്യൻ്റെയൊക്കെ ഇത് അതുവച്ചു പണിയുമ്പോള് എന്നാണെന്നു പറഞ്ഞാലും പൊടി പറക്കുമല്ലോ അത് പിന്നെ അത് പിന്നെ സാരമില്ലിപ്പോള് നമുക്കെല്ലാം എല്ലാം സഹിക്കണ്ടേ അത് സാരമില്ല പിന്നെ ഈ പഠിത്തത്തിൻ്റെ ഒരു ഒറ്റ വിഷയത്തിലായിരുന്നെ ആ ആ അപ്പോഴത് അന്നേരം ആ അന്നേരത്തേനു നമുക്ക് അന്നേരത്തേന് നമുക്ക് ഒരു ഇച്ചിരി ദിവസത്തേനൊന്ന് പണിയൊന്ന് അഡ്ജസ്റ്റ്യ്ത് പോകുകയാണെങ്കില് പിള്ളേരുടെ കാര്യം എല്ലാം ഓക്കെയായിട്ട് നമുക്കു കുഴപ്പമില്ല ആ അതൊന്നറിയാനായിട്ടായിരുന്നേ

ആ അകത്ത് പണി ചെയ്യുമ്പോള് നമുക്ക് അങ്ങനെ വലിയ അധികം ബുദ്ധിമുട്ട് വരികേലല്ലോ അകത്തെ അകത്തെ പണിയാകുമ്പഴേ ഹലോ ആ ആ ആ ആ പിന്നെ വേറെ എന്നാക്കെയുണ്ട് വിശേഷം ഇത് പണിയൊക്കെ ഏറെക്കുറെ തീരാറായല്ലേ അന്നേരത്തേനു പാലു കാച്ചും പാലു കാച്ചും കാര്യങ്ങളുമൊക്കെ എപ്പോഴത്തേനായിരിക്കും അതൊക്കെ എപ്പോഴത്തേനായിരിക്കും

ആ എന്നാ ഒരു കുഴപ്പവുമില്ലായിരിക്കും നമുക്ക് നല്ല ആ ആ ആ അന്നേരം ഒരു ഈസ്റ്ററ് കഴിഞ്ഞെന്നാല് നോയമ്പെല്ലാം തീർന്നു കഴിയുമ്പഴ്ത്തേനും നമുക്കടിച്ചുപൊളിക്കാം

ആ ആ ആ പിന്നേ ആ കോണ്ടാക്ടിലെ നമ്പരെനിക്കൊന്ന് തരുവോ വർക്ക് എനിക്ക് നമ്മുടെ വർക്കേരിയയുടെ പണിയൊക്കെയൊന്നു ചെയ്യാനായിട്ടേ ആ അത് ആ കോൺടാക്ട് നമ്പരൊന്നു തരികയാണെങ്കില് നമുക്ക് അവരെ വിളിച്ചിട്ടേ അതൊന്നു ചോദിക്കുകയും ചെയ്യാം ആ പുള്ളിക്കാരൻ നന്നായിട്ട് പണിയുകയും പണിയിപ്പിക്കുകയുമൊക്ക ചെയ്യുന്നതല്ലേ ആ അന്നേരം പിന്നെ നമ്മള്ക്ക് ഇപ്പോള് അയൽവക്കത്തെ വീട്ടില് നന്നായിട്ട് പണിയുവാണെങ്കില് നമുക്കത് കണ്ടുകഴിയുമ്പോഴേ ഒരു വിളിച്ചു പണിയിപ്പിക്കാനാണേലും നമുക്കൊരു ഉത്സാഹം തോന്നുമല്ലോ ആ അപ്പോള് നമ്മുടെ പണി നല്ല രീതിയില് നടക്കട്ടെ ഉം ആ ശരി ശരി ഓക്കേ ഓക്കേ